ഞാൻ ഇപ്പോൾ ഒരു പുതിയ സ്മാർട്ട് ഫോണിനായി ഓൺലൈനിൽ തിരയുകയാണ് എന്നാൽ എനിക്ക് ഏറ്റവും അനുയോജ്യമായത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ ഉപയോഗിക്കുന്ന പ്രധാന കാര്യങ്ങൾ പോലെ മികച്ച ഒരു ക്യാമറ ക്വാളിറ്റിയും

താരതമ്യം ചെയ്യുകയും ചെയ്തു അതിനാൽ ഉപഭോക്ത അഭിപ്രായങ്ങളും വിദഗ്ധ നിരൂപങ്ങളും കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ അവസാന തീരുമാനം എടുക്കുകയുള്ളൂ സ്മാർട്ട് ഫോൺ വാങ്ങുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് സഹായകമാകുന്നതിനായി ഇത്തരം പരിശോധനകൾ എല്ലാവരും നടത്തണം ഞാൻ ഇതിനായി ഒരേ സമയം ഒരുപാട് ഓൺലൈൻ സ്റ്റോറുകളും തുടങ്ങുന്നു

അനുയോജ്യമായ സ്മാർട്ട് ഫോണുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന വിഷയത്തിൽ ഞാൻ മറ്റുള്ളവർക്കായി ഒരു ചെറിയ പോസ്റ്റും തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്